വേനല്ക്കാലത്ത് വെള്ളം ലാഭിക്കുന്നതിനുവേണ്ടി ഞാൻ ലീക്കുള്ള പോസറ്റുകളൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെത്തന്നെ സോപ്പിട്ട് കഴുകാത്ത വെള്ളങ്ങൾ നല്ല നന്നായിട്ട് വാഷ് ചെയ്യുന്ന ആ വെള്ളം ബക്കറ്റില് ശേഖരിച്ചുവെച്ച് പച്ചക്കറിക്കും മറ്റും ഒഴിക്കാറുണ്ട് അതുപോലെത്തന്നെ തുണി അലക്കുമ്പോൾ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ച് ടാപ്പ് ഓണാക്കാൻ ഇടാതെ വെള്ളം സേവ് ചെയ്ത് ഉപയോഗിക്കുന്നു സോപ്പ് ഇല്ലാത്ത വെള്ളം പച്ചക്കറിക്കും മറ്റും ഉപയോഗിക്കുന്നതിനായിട്ട് സൂക്ഷിച്ചുവെക്കുന്നു മഴ പെയ്യുമ്പോൾ ആ വെള്ളം പിടിച്ച് അത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുന്നു